സാങ്കേതിക വിദ്യയുടെയും ഇൻ്റർനെറ്റിൻ്റെയും ഒക്കെ വളർച്ച കാരണം മലയാള ഭാഷ ഇപ്പോൾ അന്യംനിന്ന് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ അവർ പരിഷ്ക്കാരങ്ങളെ തേടിപ്പോകുന്ന ആൾക്കാരാണ് ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷ് പറയണം ഹിന്ദി പറയണം എങ്കിലേ നമുക്ക് വിലയുള്ളു എന്നൊക്കെയാണ് അപ്പോൾ അങ്ങനെയല്ല മലയാള ഭാഷ എന്നത് മലയാളികളുടെ സംസ്കാരം കൂടിയാണ് എന്നാൽ മലയാളികൾ ഇന്ന് ഇപ്പോൾ അവരുടെ ഇംഗ്ലീഷൊക്കെ പറയുന്നത് കേട്ടാൽ വിചാരിക്കും അവർ മലയാളികൾ അല്ല എന്ന് ഇപ്പോൾ സാങ്കേതിക വിദ്യയിലായിക്കോട്ടെ എവിടെ നോക്കിയാലും ഇംഗ്ലീഷ് ഹിന്ദി എന്നിങ്ങനെയുള്ള കൂടുതലും ഈ ഇംഗ്ലീഷുതന്നെയാണ് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത് അതുപോലെത്തന്നെ ഏതൊരു സാഹചര്യത്തിലും ഇപ്പൊൾ ഏതൊരു ജോലിക്ക് പോകുന്നതാണെങ്കിലും ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷ അറിയുമോ എന്നാണ് ചോദിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷക്കാണ് മുൻതൂക്കം നല്കുന്നത് ഇപ്പോൾ ഇൻ്റർനെറ്റിലായിക്കോട്ടെ അത് തന്നെയാണ് ഇപ്പം നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അല്ലെങ്കിലും അതിൻ്റെ ആൻസർ ഇംഗ്ലീഷിൽ തന്നെയാണ് പറയുന്നത് ഏതൊരു ഇൻ്റർവ്യൂവിലാണെങ്കിലും ഇംഗ്ലീഷിലൂടെയാണ് കാര്യങ്ങൾ സംസാരിക്കേണ്ടത് അപ്പം മലയാളികൾക്ക് കളായ നമ്മൾക്കൊരു പെട്ടെന്ന് തന്നെ മലയാളം പറയുമ്പോളൊരു പെട്ടെന്നുതന്നെയൊരു ഒരു വിറ വരും ഇനിയിപ്പോൾ ഇനി മലയാളം പറഞ്ഞു പോയാൽ നമുക്ക് ജോലി കിട്ടില്ലേ എന്നൊരു ഒരു ഒരു ബോധം നമ്മുടെയൊക്കെ നമ്മുടെ തലയിലേക്ക് ഉയർന്നു വരും അങ്ങനെ ഒരുപാട് മാറ്റങ്ങളിന്നു നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട് മലയാളഭാഷ ഇത് ഇതുകൊണ്ടുതന്നെ അന്യംനിന്നു പോകുന്നതായിട്ടുള്ള ഒരവസ്ഥയിലേക്കാണ് വരുന്നത്